അതെയല്ലോ എന്തായിരുന്നു വേണ്ടത് കേക്ക് എന്തെങ്കിലും വേണമായിരുന്നോ ഏതായിരുന്നു ഫ്ലേവർ മാം ചോക്ളയ്റ്റ് വേറെ എന്തെങ്കിലും വേണ്ടതുണ്ടോ കൂടെ ടോപ്പര് പാർട്ടി ടോപ്പര് എല്ലാം ഞങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും വേണമായിരുന്നോ ചോക്ളയ്റ്റ് കേക്ക് മാത്രം മതിയോ വേറെ ഇഷ്ടംപോലെ ഫ്ലേവറുണ്ട് റേയ്റ്റൊരു ആയിരത്തി മുന്നൂറാകും ഫ്രീ ഡെലിവറി ആണ് ആ ഉണ്ടുണ്ടുണ്ട് വേറെ ഏതെങ്കിലും കേക്ക് നോക്കുന്നുണ്ടോ എന്ത് ഒക്കേഷനായിരുന്നു മേം ബെർത്ത്ഡേ കുഞ്ഞിൻ്റെ ബെർത്ത്ഡേ വല്ലതുമാണോ കുഞ്ഞ് ആൺകുട്ടിയോ പെൺകുട്ടിയോ പെൺകുട്ടി അപ്പോളൊരു ബ്ലൂ തീമിലുണ്ടാക്കിയാൽ മതിയോ ബ്ലൂ തീം മതിയോ വേറെ ഏത് ഏത് കളറാണ് വേണ്ടത് പിങ്ക് മതിയോ സാധാരണ ഞങ്ങള് പ്രിഫെര് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് ബ്ലൂ ആയിരുന്നു മേം അതാണ് ഞാൻ എടുത്തുചോദിച്ചത് ആഹാ ഓക്കെ വേറെയെന്തെങ്കിലും കപ്പ് കേക്ക് അങ്ങനെയെന്തെങ്കിലും കൂടെ വെയ്ക്കേണ്ടതുണ്ടോ ആഹാ കേട്ടില്ല മാം ഒന്നുകൂടി പറയാമോ ഒന്നുകൂടെ പറയാമോ കേട്ടില്ല ആഹാ വേറെയെന്തെങ്കിലും വേണമായിരുന്നോ ആഹാ എത്രമണിയാകുമ്പോഴത്തേക്ക് ഡെലിവറി ചെയ്യണമായിരുന്നു മാം ആ അഞ്ച് മണി ഇത് എവിടെയായിരുന്നു സ്ഥലം വരുന്നത് എവിടെയായിരുന്നു ആഹാ ഇതെവിടെയായിരുന്നു സ്ഥലം ഹലോ ഹലോ ആ എഴുതാം മാം എഴുതാം എഴുതാം ഏത് കളര് വെച്ചാണ് എഴുതേണ്ടത് ആഹാ പിങ്ക് കളറുള്ള കേക്കില് വേറെയെന്തെങ്കിലും വേണമോ മാം ആഹാ കപ്പ് കേക്ക് മാത്രം മതിയോ വേറെ എക്സ്ട്രാ കേക്ക് വല്ലതും വേണോ നമുക്ക് പീസായിട്ട് പേസ്ട്രി പോലെ മുറിച്ച് കൊടുക്കാം ബാക്കിയുള്ളവർക്ക് ആ അത് ഒരു കിലോയുടെയോ രണ്ട് കിലോയുടെയോ നമുക്കെത്രേന്റേതാണ് എടുക്കേണ്ടത് ഏതാണ് ഒരേ ഫ്ലേവറില് തന്നെയാണോ വേറെ ഫ്ലേവറിലുള്ള കേക്കുകളാണോ വേണ്ടത് നമുക്ക് റെഡ് വെൽവെറ്റുണ്ട് പിസ്താ കേക്കുണ്ട് വാനില കേക്കുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചീസ് കേക്ക് വരെ അവൈലബിളാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ചീസ് കേക്കും മറ്റും കൊടുക്കാം ചീസ് കേക്ക് അഫൊർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റില് ഞങ്ങളുണ്ടാക്കിത്തരാം മാം ഒരു രണ്ട് കിലോയ്ക്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് മേം ആ ഓക്കെ മാം മാം ഇത് എത്രമണിക്കായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് അഞ്ച് മണിക്ക് സ്ഥലം എവിടെയായിരുന്നു വരേണ്ടത് ആ ഓക്കെ മാം ഓക്കെ ശരി അഞ്ച് മണിയല്ലേ ആഹാ രണ്ട് രണ്ട് കിലോയുടെ ചീസ് കേക്കും പിന്നെ ബ്ലൂ തീം വരുന്ന അ ഒരു കേക്കും ഓക്കെ അത് എത്ര കിലോയുടേതായിരുന്നു നാല് കിലോ അല്ലേ ആ ഓക്കെ ശരി മാം ശരി ശരി